ആദിമ മനുഷ്യർ ഒരിക്കലും മലയാളത്തിൽ ആയിരുന്നില്ല സംസാരിച്ചിരുന്നത് മറിച്ച് ആംഗ്യ ഭാഷയായിരുന്നു അവർ സംസാരത്തിനായി ഉപയോഗിച്ചിരുന്നത് പിന്നീട് കാലക്രമേണേ ആംഗ്യ ഭാഷയിൽ നിന്നും ആംഗ്യങ്ങളൊക്കെ ഒഴിവാക്കി ഓരോ വാക്കുകൾ അവര് കൂട്ടിച്ചേർത്തു ഒരു ഭാഷ ഉണ്ടാക്കി അതിൻ്റെ പേരായിരുന്നു മലയാളം എന്നാൽ ഇന്ന് മലയാളം അല്ല മലയാളികൾ സംസാരിക്കുന്നത് മലയാളത്തിൽ നിന്നും ഒരുപാടു വ്യത്യസ്തമായ മലയാളങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുകയും അതിന് മലയാളം എന്നുള്ളൊരു പേര് അവർ കൊടുക്കുകയും ചെയ്യുന്നു ഇന്ന് മലയാളം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് മലയാളികൾ മറിച്ച് ഇംഗ്ലീഷ് ഭാഷയെ അവർ സംസാരിക്കാനായി ഉപയോഗിക്കുകയും ഒരു കമ്പനിയിലോ ഒരു ഒരു സമൂഹ മാധ്യമങ്ങളിലോ മറ്റുള്ളവരോട് സംസാരിക്കാനും ഒക്കെയും അവർ ഇംഗ്ലീഷ് ഭാഷയാണ് തേടിപ്പോകുന്നത് ഇന്ന് നമ്മുടെ മലയാള ഭാഷ എല്ലാ മലയാളികളും മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്